കേരളത്തിലെ വ്യവസായങ്ങൾക്കുള്ള മൂലധനത്തിൻ്റെയൊക്കെ പ്രധാന സ്രോതസ്സെന്ന് പറയുമ്പോള് പ്രവാസികളില് ഉള്ള പൈസയാണ് മെയിനായിട്ട് നമ്മുടെ കേരളത്തിൽ ഓരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി കൂടുതല് വരുന്നത് പ്രവാസികൾ കഷ്ടപ്പെട്ട് അവിടെനിന്ന് പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊരു പ്രസ്ഥാനം തുടങ്ങും പല വിധത്തിലുള്ള എതിർപ്പുകളും പല പ്രശ്നങ്ങളും രാഷ്ട്രീയക്കാരുടെയും അങ്ങനെയുള്ള വിഷയങ്ങളും യൂണിയൻകാരുടെയും അങ്ങനെയുള്ള വിഷയങ്ങളും ജാതി മതം രാഷ്ട്രീയം എന്നുവേണ്ട എല്ലാ ഫീൽഡില് നിന്നും തിക്താനുഭവങ്ങളുണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയെന്ന് പറയുന്നതും ഒരു ടാസ്ക്കാണ് പിന്നെയിപ്പം ബാങ്കില് നിന്ന് ലോണുകള് കിട്ടും ലോൺ കിട്ടണമെങ്കിൽ അതിൻ്റേതായ ആസ്തികൾ എന്തെങ്കിലും നമ്മള് ഈട് കൊടുത്ത് അങ്ങനെയൊക്കെയെ ലോൺ കിട്ടുകയുള്ളൂ അങ്ങനെ പൈസ സംഘടിപ്പിക്കാൻ സാധിക്കും ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിന് ഒരു വ്യവസായം തുടങ്ങുന്നതിന് ഒരു ചെറിയ അവനവനെ കൊണ്ട് കൊണ്ടുപോകാവുന്ന ഉറപ്പുള്ള എന്തെങ്കിലും തുടങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല അത് ബാങ്കുകാരാണെങ്കിലും സഹായിക്കും ഗവൺമെൻറ്റാണെങ്കിലും സഹായിക്കും ഗവൺമെൻറ്റില് നിന്നാണെങ്കിലും ഇപ്പോള് കേന്ദ്ര ഗവണ്മെൻറ്റില് നിന്നാണെങ്കിലും ഒത്തിരി ഒത്തിരി ലോണുകളും അതുമിതുമൊക്കെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒത്തിരി ഒത്തിരി സ്കീമുകളുണ്ട് അങ്ങനത്തെയൊക്കെ സ്കീമിലൊക്കെ ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണെങ്കില് നല്ലതായിരിക്കും തുടങ്ങാൻ ബുദ്ധിമുട്ടൊന്നുമുണ്ടാകില്ല അതുപോലെ ഒരു മൂന്ന് നാല് നാല് അഞ്ചാറ് പേര് കൂടി ഒരു സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിയില് അംഗങ്ങളായവര് എല്ലാവരുംകൂടെ കൂടി ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണെങ്കിൽ അതിന് ഗവൺമെൻറ്റില് നിന്ന് ഒത്തിരി സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടിന്മേല് തുടങ്ങിക്കഴിഞ്ഞാല് ഇത്രയും മെമ്പേഴ്സും അവരുടെ ആൾക്കാരുമൊക്കെ നോക്കുമ്പോള് അത് മാർക്കറ്റ് ചെയ്യാനും മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുമൊക്കെ ബുദ്ധിമുട്ടൊന്നുമുണ്ടാകില്ല എന്താണെങ്കിലും നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഉൽപാദിപ്പിച്ച് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ അതൊരിക്കലും പരാജയപ്പെടുകയില്ല മനുഷ്യന് ആവശ്യമുള്ള ഐറ്റങ്ങളായിരിക്കണം അല്ലാതെ ഇപ്പോള് നമ്മള് സാധാരണക്കാരുടെ ഇടയിൽ തുടങ്ങുമ്പോള് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്നതായിട്ടുള്ള ഐറ്റങ്ങളൊക്കെ തുടങ്ങി അതും സത്യസന്ധമായിട്ടും ക്വാളിറ്റിയോട് കൂടിയതായിട്ടും ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ മായമൊക്കെയില്ലാതെ ആ ഫുഡ് തന്നെ ഫുഡിൻ്റെ ഐറ്റങ്ങള് നല്ല സാധനങ്ങളൊക്കെ കൊടുക്കുക അതിനോടുള്ള നിരവധി നിരവധി ഉൽപ്പനങ്ങൾ ഉണ്ടാക്കുക അത് മാർക്കറ്റ് ചെയ്യാനും എളുപ്പമുണ്ട് നാട്ടിലാദ്യം സ്വന്തം നാട്ടിൽ തന്നെ ആദ്യം മാർക്കറ്റ് ചെയ്യുക മാർക്കറ്റ് ചെയ്തുകഴിയുമ്പോള് നല്ല സാധനമാകുമ്പോള് അവര് തന്നെ മറ്റുള്ള അവരുടെ വീട്ടുകാരോടും കുടുംബക്കാരോടും സുഹൃത്തുക്കളോടുമൊക്കെ പറയും അങ്ങനെ പറഞ്ഞുകഴിയുമ്പോള് അവരുമൊന്ന് പരീക്ഷീച്ച് നോക്കാമെന്നുള്ള വിധത്തില് അവരുമൊന്ന് മേടിച്ചുനോക്കും മേടിച്ചുനോക്കുമ്പോള് സാധനം കൊള്ളാമെങ്കിൽ അവര് അവരുടെ ആൾക്കാരോട് വീണ്ടും പറയും അങ്ങനെ അങ്ങനെ ഒരു ഒരു ഒരു നാട്ടില് നിന്ന് തുടങ്ങിയ പ്രസ്ഥാനം ഒരു കേരളം മൊത്തം വ്യാപിപ്പിക്കും അല്ലെങ്കില് ഇന്ത്യ മൊത്തം വ്യാപിപ്പിക്കും സംസ്ഥാനത്ത് നിന്ന് അടുത്ത സംസ്ഥാനത്തേക്ക് പോയി അങ്ങനെ അങ്ങനെയൊക്കെയായിട്ട് വലുതാകാൻ സാധിക്കും പൈസയ്ക്ക് മൂലധനത്തിന് വലിയ ബുദ്ധിമുട്ട് വരില്ല ഗവണ്മെൻറ്റില് നിന്നാണെങ്കിലും ബാങ്കില് നിന്നാണെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങള് എല്ലാം തന്നെ പൈസകളൊക്കെ കൊടുക്കും നമ്മളതിന്റെ ആ ഈട് കൊടുക്കണം അവർക്കതിനുള്ള ഒരു ഉറപ്പ് നമ്മള് കൊടുക്കണം നമ്മള് ലോണെടുത്താല് തിരിച്ചടയ്ക്കാനുള്ള ശേഷി നമുക്കുണ്ടെന്നുള്ളതിന്റെ ഒരിത് നമ്മള് കൊടുക്കേണ്ടി വരും അതിപ്പോള് എവിടെയാണെങ്കിലും കൊടുക്കേണ്ടി വരും പിന്നെ എല്ലാ ആത്മാർത്ഥതയോടും കൂടി നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മള് അതിലിറങ്ങുന്നു അത് അതുപോലെയിരിക്കും നമുക്കെന്തുമാത്രം ആത്മാർത്ഥമായിട്ട് നമ്മള് ചെയ്യുന്നു അതനുസരിച്ച് നാട്ടിൽ ജനങ്ങൾ സ്വീകരിക്കും നല്ല ഉൽപ്പന്നമായിരിക്കണം നല്ല രീതിക്ക് പോകണം അങ്ങനെ മാർക്കറ്റിങ്ങിന് ചെറിയ പരസ്യങ്ങളൊക്കെ കൊടുത്തും ഒക്കെയായിട്ട് നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും പുതിയൊരു പ്രസ്ഥാനത്തിലേക്ക് സാമ്പത്തികമുള്ള സാമ്പത്തികമുള്ളവർ ഉള്ള സാമ്പത്തികം പുതിയ എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇട്ട് പ്രസ്ഥാനം രൂപീകരിക്കുകയാണെങ്കിൽ അവർക്കും നല്ലതാണ് ഒരു പത്ത് പേർക്ക് ജോലി കിട്ടിയാല് അതും നല്ലതാണ് നാടിനും നല്ലതാണ് നമ്മുടെ ഗവർമെൻറ്റിനും നല്ലതാണ് എല്ലാവർക്കും അതുകൊണ്ട് ഗുണങ്ങൾ കിട്ടും അങ്ങനെയെ പ്രസ്ഥാനങ്ങള് വളരാൻ പറ്റുകയുള്ളൂ ബാങ്ക് വായ്പകളും പിന്നെ ഓ ഡി ഒക്കെയാണെങ്കിലും കിട്ടുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴത്തെക്കാലത്തില്ല ഏത് ബാങ്ക് എല്ലാ ബാങ്കുകളിലും പൈസ മിച്ചം കിടക്കുകയാണ് ഡിപ്പോസിറ്റ് മിച്ചം കിടക്കുകയല്ലേ അപ്പോള്പ്പിന്നെ ആര് ചോദിച്ചാലും ലോൺ കിട്ടും അതിന്റേതായ പ്രോജക്റ്റ് വർക്കുകളും കാര്യങ്ങളുമൊക്കെ നമ്മള് ചെയ്യണം അവർക്ക് ഇത് സത്യസന്ധമാണെന്ന് അവർക്കും തോന്നണം അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്താല് മാത്രമേ പണം സ്വരൂപിക്കാൻ പറ്റുകയുള്ളൂ എന്താണെങ്കിലും അടിസ്ഥാനമായിട്ട് നമുക്ക് ഒരു പ്രസ്ഥാനം തുടങ്ങുന്നവർക്ക് കുറച്ച് സാമ്പത്തികം സ്വന്തമായിട്ടുണ്ടായിരിക്കണം ഇല്ലെങ്കിലും ലോണായാൽ ലോണെടുത്തോ അല്ലെങ്കില് കടം മേടിച്ചോ വായ്പ്പ മേടിച്ചൊന്നും ഒരു പ്രസ്ഥാനം കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകാന് പറ്റില്ല ഏറ്റവും എളുപ്പവും ഏറ്റവും നല്ലതും ഒരു സൊസൈറ്റി പോലെയുണ്ടാക്കി ആ സൊസൈറ്റിയൊക്കെയാകുമ്പോള് അംഗങ്ങള് കൂടുതലുണ്ടാകുമല്ലോ അംഗങ്ങള് കൂടുതല് ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് മുതൽമുടക്ക് ഒത്തിരി കൂടുതല് വരില്ല എല്ലാവരും കൂടെയാകുമ്പോള് പലതുള്ളി പെരുവെള്ളമെന്ന് പറയുന്നത് പോലെ അതിന്റെയകത്ത് സൊസൈറ്റി രൂപീകരിക്കുമ്പോള് അതിന്റെ മെമ്പേഴ്സ് എല്ലാവരും തുല്യമായിട്ട് പൈസ മുടക്കുകയാണെങ്കിൽ കൂടുതല് നമുക്ക് മൂലധനമുണ്ടാക്കാൻ പറ്റും പിന്നെ മൂലധനം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ പുതിയ പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങാനുമൊക്കെ സാധിക്കും പിന്നെ ബാങ്കുകാര് വായ്പ്പകൾ തരും ഓവർ ഡ്രാഫറ്റ് തരും എല്ലാത്തിനും എല്ലാത്തിൻ്റെയും മെയിൻ ഘടകമെന്ന് പറയുന്നത് ആത്മാർത്ഥത ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോഴും തുടങ്ങുന്നയാളിന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് ആത്മാർത്ഥതയില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ അത് ഇറങ്ങിയതായിരിക്കണം അതിലിറങ്ങി നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകും ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകും നാട്ടുകാർക്ക് പ്രയോജനമുണ്ടാകും നാടിന് പ്രയോജനമുണ്ടാകും ഗവർമെൻറിനാണെങ്കിലും ടാക്സ് ഇനത്തിലും നല്ലയൊരു വരുമാനമുണ്ടാകും അങ്ങനെ പ്രസ്ഥാനങ്ങൾ പുതിയ പുതിയ പ്രസ്ഥാനങ്ങള് വരിക പുതിയ പുതിയ കാഴ്ചപ്പാടുകള് മനുഷ്യനുണ്ടാകണം കാഴ്ചപ്പാടിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ബിസിനസ് കൊണ്ടുവരാൻ നോക്കണം അതില് നിന്ന് ലാഭമുണ്ടാക്കാൻ നോക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്താണെങ്കിലും ഒരു ബിസിനസ്സ് തുടങ്ങണമെങ്കിൽ അതിന്റെ പ്രധാന സ്രോതസ്സ് ബാങ്ക് തന്നെ ബാങ്കിനെ സമീപിക്കാതെ പറ്റില്ല അതുപോലെ ഗവര്മെൻറിന്റെ സപ്പോർട്ടും ഗവര്മെൻറ് ഇപ്പം പ്രധാനമന്ത്രിയുടെ ഒത്തിരി ഒത്തിരി സ്കീമുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഏത് ചെറിയ പ്രസ്ഥാനം തൊട്ട് വലിയ പ്രസ്ഥാനം വരെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായവും അതുപോലെ ട്രെയിനിങ്ങും എല്ലാം നമുക്ക് തരും അതിന് വ്യവസായ വകുപ്പുണ്ട് വ്യവസായ വകുപ്പുമായിട്ട് നമ്മള് ബന്ധപ്പെട്ടുകഴിയുമ്പോൾ അവർ നമുക്ക് ട്രെയിനിങ് തരും അവർ അതിനുള്ള മാർഗരേഖ തരും അത് അതനുസരിച്ച് നമ്മള് മുന്നോട്ടുനീങ്ങിയാല് ഏത് മനുഷ്യനും പ്രസ്ഥാനങ്ങള് മുന്നോട്ടുകൊണ്ടുപോകാൻ സാധിക്കും നല്ല നല്ല ഉൽപ്പന്നങ്ങളുണ്ടാക്കാൻ സാധിക്കും അതു നമുക്ക് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കും പിന്നെ നന്നായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതിന് എല്ലാ ഭാഗത്ത് നിന്നുമുള്ള സപ്പോർട്ടുമെല്ലാം കിട്ടും ഇറങ്ങുന്നവര് ആത്മാർത്ഥമായിട്ട് ഇറങ്ങണം സൊസൈറ്റിയോ എന്തെങ്കിലുമൊക്കെ രൂപീകരിച്ച് ഞാൻ വീണ്ടും പറയും സൊസൈറ്റിയാണ് ഏറ്റവും നല്ലത് പല രീതിയിൽ പബ്ലിസിറ്റിക്കാണെങ്കിലും പരസ്യത്തിനും എല്ലാത്തിനും നമുക്ക് സൊസൈറ്റിയാണെങ്കില് അതുകൊണ്ട് നമുക്കൊത്തിരി എളുപ്പമുണ്ട് കാര്യങ്ങൾക്ക് ലോൺ സംഘടിപ്പിക്കാൻ എളുപ്പമുണ്ട് എല്ലാം സൊസൈറ്റിയൊക്കെയാകുമ്പോള് കാര്യങ്ങള്ക്ക് എളുപ്പമുണ്ട് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള ഇത് കാര്യങ്ങൾ ഗവൺമെൻറിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടുകളും അവര് തരും അവർ നമുക്ക് സ്റ്റഡി ക്ലാസുകൾ തരും ട്രെയിനിങ് തരും എല്ലാ കൂട്ടവും അവര് തരും പിന്നെ ഇപ്പോഴത്തെക്കാലത്തൊരു വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത അടുത്തൊക്കെ താമസിക്കുന്ന ജനങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ നിയമമനുശാസിക്കുന്ന രീതിയിലുള്ള സുരക്ഷാക്രമീകരണങ്ങൾ അതെല്ലാം വേണം അതൊക്കെ അനുസരിച്ചുള്ള കെട്ടിടങ്ങളായിട്ടാണെങ്കിലും സേഫ്റ്റി റൂൾസാണെങ്കിലും എല്ലാം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു ബുദ്ധിമുട്ട് വ്യവസായം തുടങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല എന്താണെങ്കിലും നമുക്ക് വരുമാനം നിലനിർത്തി നമുക്കൊരു ഇന്കം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ മുന്നോട്ടുപോകാൻ സാധിക്കും അതിന് വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല